ഹലോ ആരായിരുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ ആ അതെ അതെ അതെ എന്നായിരുന്നു വേണ്ടത്

തരാമല്ലോ തരാമല്ലോ ആ നെല്ലിക്ക വരുമ്പോൾ തൊണ്ണൂറാണ് കിലോ വരുന്നത് ആ എത്ര കിലോ വേണം അല്ല നെല്ലിക്ക എത്ര കിലോ വേണം പറഞ്ഞോളൂ ഒരു മീ ഓക്കെ ആ ചക്കയോ ചക്ക ഒരു കിലോ കറക്റ്റ് തന്നെ ആയിരിക്കുകയില്ല ചിലപ്പോൾ തൂക്കം വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ കാണും

ചക്ക വരുന്നത് നാനൂറ്റൻപത് രൂപയാണ് ചക്കയ്ക്ക് വരുന്നതെ ആ ഇടിച്ചക്കയുണ്ട് അല്ലാതെ നമുക്ക് പഴുപ്പിക്കാനായിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട് മൂപ്പ് വ്യത്യാസം വരുന്നുണ്ട് പഴുപ്പിക്കുന്നതിനാണെങ്കിൽ നമുക്ക് എഴുന്നൂറ് രൂപ വരും കിലോ ഇടിച്ചക്ക ആ ഇടിച്ചക്കയാണെങ്കിൽ ഇടിച്ചക്കയാണെങ്കിൽ മുന്നൂറ് അങ്ങനെ അതിൻറ്റകത്ത് തൂക്കവും ഇത് അനുസരിച്ച് വ്യത്യാസം വരും ഉം ആ ആ ബനാന വരുന്നത് എഴുപത്തഞ്ചാണെ കിലോ ഇപ്പം പാണ്ടിക്കായുണ്ട് നാടൻ കായുണ്ട് നാടൻ കായയാണെങ്കിൽ നാണ്ടക്ക നാടൻ കാ മതിയല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും സീതപ്പഴമോ തരാമല്ലോ സീതപ്പഴമുണ്ട് ആത്തി ചക്കയുണ്ട് ആ തണ്ണിമത്തൻ അങ്ങനെ വല്ലതും വേണോ ഇനിയിപ്പം ചൂടൊക്കെയല്ലേ വരുന്നത് തണ്ണിമത്തനൊക്കെയാണെങ്കിൽ നല്ലതല്ലേ തണ്ണിമത്തനോ വല്ലതും വേണോ നമുക്ക് നമുക്ക് ഹോം ഡെലിവറി ഉള്ളതാണ് കേട്ടോ ഹോം ഡെലിവറി ഹോം ഡെലവറി ഡെലിവറി ഉള്ളതാണ് ഓക്കെ ആ ഉണ്ടുണ്ട് ആ കൂടുതലെന്നു പറഞ്ഞാൽ ആ ദൂരത്തിൻ്റെ അനുസരിച്ച് അടുത്തൊക്കെയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോ മീറ്ററൊക്കെയാണെങ്കിൽ നമ്മളധികം ചാർജ് ആക്കുന്നില്ല അതിനും ഇല്ലയില്ല അതിനു മുകളിലോട്ടൊക്കെയാണെങ്കിൽ അൻപത് രൂപ ഒരു ഒരു ഒരു രണ്ട് കിലോ മീറ്റർ ദൂരം വെച്ചാണെങ്കിൽ അൻപത് രൂപ ചാർജ് വരും ആ ആപ്പിളുണ്ട് ഗ്രീൻ ആപ്പിളുണ്ട് സാധാ റെഡ് ആപ്പിളുണ്ട് ഏതാണ് വേണ്ടത് ആ പച്ചമുന്തിരി വേണോ പച്ചമുന്തിരി വേണോ ഒരു കിലോ കുരു ഇല്ലാത്തത് പിന്നെ നമുക്ക് കറുത്ത മുന്തിരിയുണ്ട് കറുത്ത മുന്തിരിയെന്നു പറഞ്ഞാൽ വൈൻ ഇടാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇച്ചിരി സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വൈൻ വല്ലതും ഇടാനാണെങ്കിൽ നമുക്കീ പൊഴിഞ്ഞു വീഴുന്നതാണെ ഡാമേജുള്ളതല്ല അത് നമുക്ക് പൊഴിഞ്ഞു വീഴുന്നതാണ് അതു ശകലം വില കുറച്ച് നൂറ് രൂപയുടെയൊക്കെ കിലോ നൂറ് വരുന്നത് അൻപത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു

ഇരുപത് കിലോ ആ നോക്കാമല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാം ആ കിലോ അൻപത് ആ ഒരു നാൽപ്പത് നാൽപ്പത് രൂപ വെച്ചു തരാം നാൽപ്പതു രൂപ വെച്ചു തരാം ആ നാൽപ്പതു രൂപ വെച്ചു തരാം ആത്തചക്കയുണ്ട് ആത്തചക്ക കിലോ വരുന്നത് നൂറ്റി ഇരുപത് രൂപ

ഏ നല്ല സാധനം നല്ലതു തന്നെ നമ്മളങ്ങനെ ഡാമേജുള്ളത് ഇതുവരെ നമുക്കങ്ങനെ ഇവിടെ കംപ്ലൈൻറ്റൊന്നും വന്നിട്ടില്ല നല്ല ഫ്രൂട്ട്സാണ് നമുക്ക് ഇവിടെ നിന്ന് എന്താ ഹോം ഡെലിവറിയും കൂടി ഉള്ളതു കൊണ്ട് നമ്മൾ നല്ലയിലെ കൊടുക്കുകയുള്ളൂ ആപ്പിളൊക്കെ ആണെങ്കിലും ചളിങ്ങി വീഴുന്നതു കൊണ്ടാണ് സൈഡ് ചീഞ്ഞ പോലെയൊക്കെ തോന്നുന്നത് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒന്നുമല്ല അങ്ങനെ വരുന്നത് നമ്മൾ ഡാമേജ് മാറ്റുക സെക്കൻറ്റ് വിലക്ക് നമ്മൾ കൊടുക്കും ആ ആ അതുപോലത്തെ അപ്പോൾ പച്ച മുന്തിരി എത്ര വേണം ആ ഇടിച്ചക്ക ചെറുപഴം വല്ലതും വേണോ ആ നല്ല പൂവൻ പഴം ഉണ്ട് അത് കിലോ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ കിലോ ആ ആയിക്കൊട്ടെ നമ്മുടെ ഇത് വേണോ നമ്മുടെ സപ്പോട്ടക്ക അത് കിലോ വരുന്നത് എൺപത് രൂപ

എടുക്കട്ടെ മൂന്നു കിലോ എടുക്കുന്നതാണെങ്കിൽ ഒരു ഇല്ലയില്ല ഇല്ല എഴുപത് രൂപ വെച്ചു തരാം നല്ലതാണ് ഏയ് ഇല്ലയില്ല പൊട്ട് നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് കാരണം നിങ്ങളെ നമുക്ക് നാളെയും വേണ്ട കസ്റ്റമറല്ലേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യൂ ഓക്കെ വെൽക്കം